എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നിറമെന്ന് പറയുന്നത് പച്ചയാണ് ഞാൻ പച്ച ഒത്തിരി ഇഷ്ടമുള്ള കളറാണ് അതുപോലതന്നെ എനിക്ക് എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീടുകളിൽ വസ്ത്രങ്ങൾ കൊണ്ടുത്തരുമ്പോഴത്തേക്കാണ് തുണി കൊണ്ടുത്തന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ ചിലതൊക്കെയുണ്ട് നമുക്ക് കളറ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കളറും തിരഞ്ഞെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ തുണി കൊണ്ടുവന്ന് തന്നിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് ഞാൻ പഞ്ചായത്തിൽ രജിസ്റ്ററ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ബാഗ് ഗാർമെൻസിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ പ്രോജെക്ടുകൾ ചെയ്യാക അവിടെനിന്ന് വർക്ക് ഞങ്ങൾക്ക് തരുമ്പോഴത്തേക്ക് ചെയ്യാനുള്ള ഇപ്പം തുണി സഞ്ചി നിർമ്മാണത്തേക്കുറിച്ചാണെങ്കിലും അവർ എനിക്ക് വർക്ക് തന്നിട്ടുണ്ടായിരുന്നു തുണിസഞ്ചി നിർമ്മാണം ഞാനത് ചെയ്തതാണ് ഞാൻ പല കടകളിലും ഓഡറ് പിടിച്ചിട്ട് ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നേ അതുപോലെ കുറച്ച് വില കുറഞ്ഞ തുണികൾ നോക്കി നമ്മൾ ക്വാളിറ്റി നോക്കി വന്നിട്ട് ഈ പ്ലാസ്റ്റിക്ക് നിരോധനത്തിന് കുറച്ച് ആ സമയങ്ങളിലായിരുന്നു നമുക്ക് തുണിസഞ്ചി നിർമ്മാണത്തിൻ്റെ ഒരിത് വന്നത് അപ്പം ഞാനതൊക്ക തുണിയൊക്കെ തന്നെത്താനെ പോയി കടകളിൽ നിന്ന് ഹോൾസെയില് വിലക്കെടുത്ത് സ്റ്റിച്ച് ചെയ്ത് പല കടകളിലായിട്ട് നമ്മൾ ബൾക്കായിട്ട് കൊടുത്താണ് നമ്മളത്തിൻ്റെ ഒരിത് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ പച്ച കളറിനോട് എനിക്കൊത്തിരി താൽപ്പര്യമാണ് അപ്പോൾ അത് പച്ച സ്റ്റിച്ച് ചെയ്ത് പച്ചത്തുണികളോട് എനിക്ക് കൂടുതൽ അട്ട്രാക്ഷനുള്ളൊരു കളറാണെൻ്റേത് അപ്പം അതുകാരണം ഞാനതിനോട് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ നിറങ്ങൾ ഏത് തിരഞ്ഞെടുക്കണ കളറ് പല പലരും കൊണ്ടുത്തരുന്നതായത് വേണം പല രീതിയിലുള്ള നൂലുകളിട്ടായിരിക്കും നമ്മളപ്പം തയ്ക്കേണ്ടി വരുന്നത് പിന്നേ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾക്ക് അപ്പോൾ അവർ കൊണ്ടു വരുന്ന തുണിയുടെ സെയിം കളറുതന്നെ നോക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നെയ്ത്ത് തുണികളുടെ പ്രൊജെക്റ്റുകളൊക്കെ നമ്മളങ്ങനെയൊക്കെത്തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത് പാർലറുകളിലൊക്കെ പല കടകളിലും ഞാനിങ്ങനെ വർക്ക് പിടിക്കുമായിരുന്നു നൈറ്റിയൊക്കെയാണെങ്കിലും ഞാൻ ബൾക്കായിട്ട് തയ്ച്ച് പല കടകളിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അവർ തരുന്ന ഓരോ കളറിനനുസരിച്ചുള്ള നൂലുകളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് തയ്ച്ച് കൊടുക്കാറുള്ളത് അങ്ങനെ സ്റ്റിച്ചിങ്ങിലൊക്കെ ഒരു ബുന്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും